ഹലോ ആരായിരുന്നു അതെ ആ എന്ത് എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇന്നലെ നൈറ്റ് എന്താണ് കഴിച്ചത് പുറത്തുനിന്നാണോ കഴിച്ചത് അതോ വീട്ടിൽ നിന്ന് തന്നെയാണോ കഴിച്ചത് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു അല്ലേ പിന്നെ വെള്ളമൊക്കെ നല്ലവണ്ണം കുടിക്കാറുണ്ടോ ചിലപ്പോൾ എന്തെങ്കിലും അതായത് യൂറിൻ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മൂത്രത്തിൽ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അതുകൊണ്ടായിരിക്കും ഭയങ്കര അതായത് ഒരു സൈഡിലായിട്ടാണോ വേദന നടുവേദനയുണ്ടോ ആ അങ്ങനെ ആണെങ്കിൽ യൂറിൻ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും അതായത് ഒന്നാമത് ഇപ്പോൾ വെയിൽ നല്ല വെയിലുള്ള സമയമല്ലേ

സമയത്തിന് ഫുഡ് കഴിക്കാറുണ്ടോ എന്തെങ്കിലും ജോലിക്ക് പോവുന്നതാണോ ഓഫീസിൽ പോവുന്നുണ്ടല്ലേ അപ്പം ടൈമിന് ഫുഡ് ഒക്കെ കഴിക്കാറുണ്ടോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരൊക്കെ അപ്പം പിന്നെ അതുകൊണ്ടെന്തായാലും ഫുഡിൻ്റെ എന്തായാലും ആയിരിക്കില്ല പിന്നെ എന്ന് പറയുവാണെങ്കിൽ പിന്നെ അതായത് ചിലപ്പോൾ ഇന്നലെ കഴിച്ച ചപ്പാത്തി അല്ലേ ചിലപ്പോൾ ഗോതമ്പ് പൊടിയിലെന്തെങ്കിലും പൂപ്പലോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പം അതിൻ്റെയാണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് മിക്കവാറും യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും വെള്ളം നല്ലവണ്ണം കുടിക്കുക ഒന്നാമത് വെയിലല്ലേ നമ്മളെത്ര വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതായത് ഇതുണ്ടാവില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും യൂറിൻ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഫുഡ് ഇൻഫെക്ഷൻ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടിവയർ വേദനയല്ലേ ഒരു സൈഡ് അല്ലേ അപ്പോൾ മിക്കവാറും എന്തായാലും മൂത്രത്തിൽ പഴുപ്പ് തന്നെയായിരിക്കും മ് പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നേരിട്ട് കാണിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാണ്ട് നമുക്ക് മരുന്നൊന്നും റെഫർ ചെയ്യാൻ പറ്റില്ല ആ അപ്പം ആ എന്നാൽ യൂറിൻ ഇന്ന് തന്നെ വരുവാണെങ്കിൽ ഇന്ന് തന്നെ വന്നോളൂ അതായിരിക്കും നല്ലത് അല്ലാണ്ട് പെയിൻ കില്ലർ അതായത് പാരസെറ്റാമോൾ അങ്ങനെയൊന്നും എടുത്ത് കഴിക്കരുത് കേട്ടോ പെയിൻ പോവാൻ വേണ്ടി എന്തായാലും കാണിച്ചിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കൂ ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ടും കൊണ്ടൊന്ന് വന്ന് വന്നാൽ മതി നമ്മളിവിടെ നാല് മണി വരെ ഉണ്ടല്ലോ ആ എന്നാൽ അങ്ങനെ വന്നാൽ മതി കേട്ടോ ആ ഓക്കെ എന്നാൽ